ഞാൻ കളിച്ചിട്ടുള്ള കളികൾ കൊക്ക് കളിച്ചിട്ടുണ്ട് അക്ക് കളിച്ചിട്ടുണ്ട് ടൈൽസ് കളിച്ചിട്ടുണ്ട് കുപ്പി ഗ്ലാസ് കളിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഷട്ടിൽ ബാറ്റ് കളിച്ചിട്ടുണ്ട് അതല്ല വെള്ളത്തിൽ നിന്ന് തൊട്ടാൻ കാക്ക കളിച്ചിട്ടുണ്ട് ഐസ് ആൻ്റ് വാട്ടർ കളിച്ചിട്ടുണ്ട് സാറ്റ് കളിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാം ഗെയിമും നല്ല ഇഷ്ടമാണ് കുട്ടിക്കാലത്ത് കളിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട് അതുപോലെത്തന്നെ ഷട്ടിൽ ബാറ്റ് കളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടമാണ് ഷട്ടിൽ ബാറ്റ് അവരവരുടെ കളത്തിൽത്തന്നെ വീഴുമ്പോഴാണ് മാർക്ക് പോകുന്നത് ഷട്ടിൽ ബാറ്റ് നമ്മൾതന്നെ അടിച്ച് അതിന്റെ കോർക്ക് നമ്മളടിച്ച കളത്തിൽത്തന്നെ വീഴുകയാണെങ്കിൽ മാർക്ക് വരും അപ്പുറത്തെ കളത്തിലേക്ക് ഇടുകയാണെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടും അങ്ങനെയാണ് ഇത് കളി അതുപോലെത്തന്നെ വെള്ളത്തിൽനിന്ന് തൊട്ടാൻ കാക്ക കളിക്കും അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് വെള്ളത്തിൽനിന്ന് തൊട്ടാൻ കളിക്കും തൊട്ടാൻ കാക്ക കളിക്കുന്ന സമയത്ത് തൊട്ട ആളെ തന്നെ പിന്നെ ക്യാച്ചർ ഒരാളെ തൊട്ട് അയാൾ ക്യാച്ചറായാൽ ക്യാച്ചറ് ആ തൊട്ട ആളെ തൊടാൻ പാടില്ല ആദ്യത്തെ ക്യാച്ചറെ തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ നിയമം ഉണ്ടായിരുന്നു ഫുട്ബോള് കളിക്കുമ്പോൾ പെനാൽറ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാകുമ്പോൾ എല്ലാവരെയും പറ്റിക്കാൻ പറ്റും പെനാൽറ്റി ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കളിക്കാറ്